അതെ അതേയല്ലോ ആരാ

അ നോക്കട്ടെ നോക്കട്ടെ നോക്കിയിട്ട് പറയാവെ ആ ഉണ്ട് ഉണ്ട് ഒരു മാമോദീസ പാർട്ടിയുണ്ട് ഇല്ലില്ലില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ചെയ്തോളാം കുഴപ്പമൊന്നും ഇല്ല എത്ര മണിക്കാണ് എത്ര പേരൊരുണ്ട് നിങ്ങൾ എത്ര പേരുണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല അതിനിവിടെ കുഴപ്പമൊന്നും ഇല്ല അതിന് പിന്നെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ അല്ല ഇവിടെ അതിനുള്ള ഏരിയ ഒക്കെയുണ്ട് അതാ ചോദിച്ചത് മ് ശരി മൈക്ക് ഒക്കെ വേണോ മൈക്കും സെറ്റുമൊക്കെ വേണോ പറഞ്ഞിട്ടുണ്ടോ ആ ആ ആ അ പിന്നെ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡാൻസ് നിങ്ങൾ അവിടുന്ന് കൊണ്ടുവരുകയാണോ അതോ ഞങ്ങൾ അവിടെ ചെയ്യണോ ഉണ്ടോ ആ ഹ ഹാ ഹ പിന്നെ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ്ഡ് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ഫുഡ്ഡിനൊക്കെ നല്ല ഇതൊക്കെ മെച്ചൂരിറ്റിയൊക്കെ ഉള്ള കുഴപ്പമൊന്നും ഇല്ല ആ കേക്ക് എന്താ പേര് എഴുതെ എങ്ങനെയാ എഴുതേണ്ടത് കൊച്ചിന്റെ പേര് എങ്ങനെയാ എഴുതേണ്ടത് എത്ര എത്ര വയസ്സാ കൊച്ചിന് എത്ര വയസ്സാ ഒരു വയസിന്റെ ആ അപ്പം കൊച്ചിന്റെ പേര് എങ്ങനെയാണ് അപ്പം കേക്ക് എങ്ങനെത്തെയാ വേണ്ടത് അത് ബ്ലാക്ക് ഫോറെസ്റ്റ് ആണോ അതോ വൈറ്റ് ഫോറെസ്റ്റ് ആണോ എന്താ അ ആ ആ ഓക്കെ അതിന്റെ പുറത്ത് ഏതാ ഏത് അക്ഷരത്തിലാ എഴുതേണ്ടത് അല്ല ഏത് കളറ് ആണ് വേണ്ടത് റെഡ്ഡ് വേണോ വൈറ്റ് വേണോ വൈറ്റ് മതി ആ ഓക്കെ പിന്നെ അത് ഇത് എത്ര കിലോടെയാണ് വേണ്ടത് എത്ര കിലോടെയാ വേണ്ടത് രണ്ട് കിലോടെ ആ അത് അ ഓക്കെ അ അ ശരി എന്നാൽ ഓക്കെ